ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ് എൻ്റെ മാതൃരാജ്യത്തെക്കുറിച്ച് പറയുന്നതിനകത്ത് എനിക്ക് ഏറെ അഭിമാനമാണുള്ളത് എൻ്റെ മാതൃരാജ്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അതിന്റെ പടം കാണിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാന് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇന്ത്യ വികസനം നേടിയിട്ടുള്ള ഇന്ത്യയിലെ റോഡുകള് ഇന്ത്യയിലെ യാത്രാ റോഡുകളുമായിട്ട് ഗതാഗത സൗകര്യങ്ങള് വളർച്ച നേടിയ മറ്റ് മേഖലകള് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനത്തിന്റെ ജീവിതരീതിയിൽ വന്നിരിക്കുന്ന കാരണം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റിക്ഷാ യുഗത്തിൽ നിന്ന് അല്ലെങ്കില് സൈക്കിൾ കാലഘട്ടത്തിൽ നിന്ന് വളർന്ന് പൊതുഗതാഗതത്തിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ചുവന്ന് അതിനുശേഷം ഇപ്പോള് ആഡംബരക്കാറുകളിലും വിലകൂടിയ യാത്രാ സംവിധാനങ്ങളിലുമൊക്കെ പോകുന്ന ഇന്ത്യയെ സംബന്ധിച്ചാണ് എനിക്ക് അഭിമാനമുള്ളത് അപ്പോള് പ്രധാനമായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏറ്റവും അത്യാധുനിക നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകള് അവയിലൂടെയുള്ള മികച്ച യാത്രാസൗകര്യങ്ങള് പ്രത്യേകമായിട്ട് പറഞ്ഞുകഴിഞ്ഞാല് പല ചെറുപട്ടണങ്ങളെ വളരെ വലിപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന മെട്രോ റെയിലുകള് ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ ഒരു വിമാനയാത്രയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്വപ്നസമാനമായ സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം പോലെ ചെറുതായിട്ടുള്ളൊരു സംസ്ഥാനത്ത് പോലും നാല് വിമാനത്താവളങ്ങളുള്ള അവസ്ഥയാണുള്ളത് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് തിരുവനന്തപുരം മദ്രാസ് കൽക്കട്ട ഹൈദരാബാദ് ബോംബെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നതെങ്കില് ഇന്നിപ്പോള് ജനത്തിൻ്റെ വളർച്ചയും മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെ ഓരോ ചുരുങ്ങിയ പ്രദേശങ്ങളിലും ഉദാഹരണമായിട്ട് എടുത്തുകഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ പറഞ്ഞുകഴിഞ്ഞാല് തിരുവനന്തപുരം ത്തെക്കാളും വളർച്ച നേടിയ മറ്റൊരു ഇതായിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയവയെല്ലാം മാത്രവുമല്ല ഈ ചുരുങ്ങിയ സ്ഥലത്തുപോലും വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടായത് ഏറ്റവും വലിയ തെളിവായിട്ട് തീർന്നിരിക്കുന്നു ഇനിയും വരാനിരിക്കുന്ന മറ്റ് ഒന്ന് രണ്ടിലധികം വിമാനത്താവളങ്ങൾ ജനം വളരെ വികസനം നേടുകയും ഉയർന്ന നിലവാരത്തിലേക്ക് അവൻ്റെ ജീവിതസാഹചര്യങ്ങള് മാറുകയും ചെയ്തിരിക്കുന്നുവെന്നുള്ളതിൻ്റെ തെളിവാണ് അതുപോലെത്തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഞാനെടുത്ത് എടുത്തുകാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ പഴയ റിക്ഷാവണ്ടിയിൽ നിന്ന് ഏറെ മുന്നോട്ടുപോയിരിക്കുന്ന കൽക്കട്ട നഗരം പഴയ മുച്ചക്രവണ്ടിയിൽ നിന്ന് മുന്നോട്ടുപോയ ഡൽഹി നഗരം പഴയ പിന്നെ മദ്രാസിന് വന്നിരിക്കുന്ന മാറ്റങ്ങള് ഇന്ത്യയുടെ ഐ ടി തലസ്ഥാനമായിട്ട് മുന്നോട്ടുപോയിരിക്കുന്ന ബാംഗ്ലൂര് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാകാൻ സാധ്യതയുള്ള കൊച്ചി കൊച്ചിയെ സംബന്ധിച്ച് പറഞ്ഞുകഴിഞ്ഞാല് മറൈൻ ഡ്രൈവ് കൊച്ചി മെട്രോ കൊച്ചിൻ ഷിപ്പ്യാര്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങള് എടുത്തുകാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെത്തന്നെ എന്താണ് ഗോവ ഗോവയിലെ വ്യത്യസ്തമായ ജീവിതസാഹചര്യങ്ങള് രാജസ്ഥാൻ മധ്യപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലെ സാംസ്കാരിക വൈവിധ്യങ്ങള് അതിപ്പോഴും നിലനിർത്തുന്നത് അതിനോട് കാണിക്കുന്ന താൽപര്യം വിവിധ വേഷങ്ങള് വിവിധ ഭാഷക്കാര് വിവിധ ആചാരങ്ങള് വിവിധ സാമുദായിക ചിന്തകള് ഇതെല്ലാം ഒരു ഫോട്ടോഷൂട്ടിലൂടെ കാണിക്കുവാനായിട്ടാണ് ഞാന് പരിശ്രമിക്കുക പ്രധാനമായിട്ടും ഇന്ത്യയുടെ വൈവിധ്യങ്ങളില് ഊന്നി നിന്നുകൊണ്ടുള്ള ഏകത്വമാണ് എൻ്റെ ക്യാമറയ്ക്ക് വിഷയമായിത്തീരുക അതിനാൽ തന്നെ എനിക്ക് ഇത്തരമൊരു അവസരം കിട്ടിക്കഴിഞ്ഞാല് ജമ്മു കാശ്മീര് മുതല് ഇങ്ങ് കന്യാകുമാരി വരെയുള്ള ഏതാണ്ട് വിവിധ ഏറെ വളരെ വളരെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ ചിത്രങ്ങള് ഇന്ന് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങള് അതൊക്കെ ചിത്രീകരിച്ച് കാണിക്കാനായിട്ടായിരിക്കും ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അക്കാര്യത്തിലാണ് റിക്ഷാവണ്ടിയിൽ നിന്ന് അതിവേഗ ട്രെയിനുകളിലേക്കും കാൽനടയിൽ നിന്ന് ആഡംബര വാഹനങ്ങളിലേക്കും ദിവസങ്ങൾ നീളുന്ന യാത്ര ഇതിൽ നിന്ന് മണിക്കൂറുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന യാത്രാസൗകര്യങ്ങളിലേക്കും എടുത്തുകാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക